പാചകം ചെയ്യുമ്പോൾ പത്രങ്ങളെല്ലാം കഴുകി പെറുക്കിയെടുത്ത് എല്ലാം വൃത്തിയായി വച്ച് മല്ലി മല്ലിപ്പൊടി മുളകുപൊടി മസാലപ്പൊടികളെല്ലാം എടുത്തു വച്ച് കറിക്കുള്ള സാധനമെല്ലാം ഒരുക്കി വച്ച് കറി വയ്ക്കുക പിന്നെ ചോറ് ചോല്ലാം കഴുകി ഇട്ട് വെള്ളം തിളച്ച് ചോറിനരി കഴുകി ചെമ്പിലിട്ട് അതു തിളപ്പിച്ച് വെന്ത ശേഷം അത് ഊറ്റിയെടുക്കുക പിന്നെ ഉപ്പേരി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം എന്താ ഉള്ളതെന്നു വച്ചാൽ അതു മുറിച്ച് കഴുകി വൃത്തിയാക്കി അതു വച്ച് അടുപ്പത്തു വച്ച് വറുത്തിട്ട് അതിൽ എന്താ ചേർക്കേണ്ടതെന്നു വച്ചാൽ എല്ലാം ചേർത്ത് ഉപ്പേരിയാക്കി എടുക്കുക പിന്നെ അച്ചാർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി പാചകങ്ങളെല്ലാം വൃത്തിയ്ക്ക് ചെയ്യുക പിന്നെ എല്ലാം ആയി പാചകം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക അതു തന്നെ പറയാനുള്ളത്